സ്കൂളുകളിൽ നടത്തുന്ന ഈ ചിത്രകല അങ്ങനെയുള്ള ഓരോരോ പരിപാടിയ്ക്ക് താല്പര്യമുള്ളവരെ വിളിക്കുന്ന സമയത്ത് എനിക്കും അതിനോടൊരു താല്പര്യം തോന്നുകയും പിന്നെ ഞാൻ അങ്ങനെ പോയി ഒന്നും അറിയാതെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചെയ്യണം എന്നു തോന്നുന്ന ഒരു ഇമേജ് മനസ്സിൽ വരുന്നു അതു ഞാൻ അങ്ങനെതന്നെ ഞാൻ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ശ്രമിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ടു തോന്നിയത് അതിൽ ഒന്നാമത് ആകുക എന്നതല്ല ആവണം എന്ന് ഉണ്ട് പക്ഷെ നമ്മളെക്കാളും എന്നെക്കാളും കഴിവുള്ള വേറെ കുട്ടികളുണ്ട് അവരാണ് അതു നേടണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കൈ നോക്കി പക്ഷെ എൻ്റെ ഒരു ആദ്യമായിട്ടു ഞാൻ ചെയ്യുന്നത് ആയതുകൊണ്ട് അത്രയ്ക്കും അത് ആയിട്ടില്ലായിരുന്നു കിട്ടാതിരുന്നപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാണ്ടിരുന്നപ്പോൾ വല്ലാതെ വിഷമം തോന്നി